സ്വാഭാവികമായിട്ട് ഒരു എഴുത്തുകാരന് ഉണ്ടാവുന്ന ഉൽക്കണ്ഠയാണ് അത് അല്ലെങ്കിൽ തൻ്റെ കഴിവിനെക്കുറിച്ച് ഉണ്ടാകുന്ന സംശയം അദ്ദേഹത്തിന് ആ ഒരു കാര്യം ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് അത് അല്ലെങ്കിൽ എഴുതാൻ കഴിയുമോ എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു സംശയം ആയിട്ട് തന്നെ ആളുടെ മുന്നിൽ ഉണ്ടാകും കാരണം അദ്ദേഹം എഴുതാൻ വേണ്ടി ചിന്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളു അതിന് എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങുക ഒന്നും ചെയ്തിട്ടില്ല ആ തുടങ്ങി കഴിഞ്ഞാൽ തീരാൻ മാത്രം ഉള്ളതായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ സംശയം അദ്ദേഹത്തിന് ഭയങ്കര സംശയം ആയിരിക്കും ഞാൻ എന്ത് എങ്ങനെ എന്നെക്കൊണ്ട് സാധിക്കുമോ ഞാൻ അതിനൊക്കെ പറ്റിയ ഒരാളാണോ എന്നെ എന്നെക്കൊണ്ട് എങ്ങനെയാണ് അതിന് സാധിക്കുക ഞാൻ ഇപ്പോൾ എന്താണതിൽ എഴുതുക

ഒരുപക്ഷെ പിന്നെ അദ്ദേഹത്തിന് ആ തുടങ്ങാതെ അദ്ദേഹത്തിന് അത് മുഴുവനാക്കാൻ കഴിയുകയില്ല കാരണം തുടക്കത്തിലാണ് പ്രധാന കാര്യം

നമ്മുടെ ചുറ്റുപാട് എങ്ങനെയായിരിക്കുമോ അതിന് അനുസരിച്ചായിരിക്കും നമ്മളുടെ എഴുത്ത് എഴുത്തും കാര്യങ്ങളും വരിക അപ്പോൾ സിറ്റുവേഷൻസ് അത് അല്ലെങ്കിൽ ചുറ്റുപാട് പരിസരങ്ങളൊക്കെ പരിസ്ഥിതിയും പ്രശ്നമാണ് പ്രശ്നത്തിലാണെങ്കിൽ ഒരു പക്ഷേ നമ്മളുടെ ചിന്ത അത്രക്കും വൈഡ് വൈഡായിട്ട് പോവാതെ എന്തെങ്കിലും ഒക്കെ നമ്മൾ എഴുതി എഴുതി കൂട്ടിയിരിക്കും അത് തീർക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടെ മാത്രം എഴുതിക്കുക ആണെന്ന് ഉണ്ടെങ്കിൽ ഉള്ള പ്രശ്നങ്ങളാണ് ആ പറയുന്നത് പിന്നെ എഴുത്തിനെ ആരൊക്കെ പിന്തുണക്കുന്നു എന്നുള്ളത് പറയുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സും സുഹൃത്തുക്കളും എല്ലാം നമ്മളെ എഴുതാന് വളരെ സപ്പോർട്ട് നൽകുന്നുണ്ട് പിന്തുണക്കാറുമുണ്ട് പിന്നെ എന്നെ വളരെയധികം പ്രചോദിപ്പിച്ച എന്തെങ്കിലും പ്രതികരണങ്ങൾ നിങ്ങളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എഴുതിയിട്ടുള്ള കഥകളും